കാനറാ ബാങ്ക് അല്ലെ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്വർണം കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു പരസ്യം കണ്ടിട്ട് ഉണ്ടായിരുന്നു ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ വിളിച്ചതാണ് അ അ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അഞ്ച് പവൻ ഉള്ളത് എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ആയിരുന്നു വേണ്ടത് അ അ അ അ അ

അ അ അ നെയൻ വൺ സിക്സ് ആണ് അ അ അ അ

അ അ സ്ഥലം ഒന്നുയില്ല ഇപ്പൊ ആധാരം ഇല്ല ആധാരം വേറെ പണയപ്പെടുത്തീട്ടാ ഉള്ളത് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു നികുതി ചീട്ട് ഉണ്ട് അ അ

അ അ അ അ അ അ അ അ ഗോൾഡിന് എത്ര പലിശ നിരക്കിലാ കൊടുക്കുന്നത് അല്ല ഈ ഗോൾഡ് ലോൺ എത്ര ആയിട്ടാ അ അ ആണോ അ

അ അ ഈ ഗോൾഡ് വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ കിട്ടുവാണെങ്കില് നികുതി ചീട്ടിൻ്റെ ആവശ്യം ഇല്ല ഇല്ലല്ലോ അ അ അ അത അ അ

അ അ അ അ നാളെ ഒന്ന് വരാം അ അ അ അ അ അ